എന്റെ വീട്ടിൽ അഞ്ചു കുട്ടികളുണ്ട് ആദ്യത്തെ രണ്ടെണ്ണം മൂത്തതും മുന്നെണ്ണം എളയതും നടുത്തതാണ് ഞാൻ രണ്ടു താത്തമാർ മൂന്ന് അനിയന്മാർ തത്തമാർ എന്റെ അതെ മുഖച്ഛായയാണ് അനിയന്മാരും എന്റെ അതേ മുഖച്ഛായയാണ് പക്ഷേ രണ്ടാമത്തെ താത്ത ഫോട്ടോ എടുക്കാൻ എന്നോടു പറയും ഞാന് അതു കൊണ്ട് എന്നും ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ച്ച് മടുത്ത്ക്കണ് പിന്നെ മൂന്നാമത്തെ താത്ത ഏറ്റവും മുറിവുള്ളാത്ത താത്ത ഇടക്കിടക്കേ വീട്ടിലേക്ക് വരുള്ളൂ കല്യാണം കഴിച്ച് രണ്ടു കുട്ടികൾ ഒക്കെയുണ്ട് ഞങ്ങളുടെ മൂന്നാളുടെയും മുഖം ഒരേ മുഖമാണ് ഒരാളെ കണ്ടാൽ ആണാണോ പെണ്ണാണോ എന്നു കൂടി തിരിച്ചറിയില്ല അത്രയും സാമ്യതയുണ്ട് ഞങ്ങളുടെ മുഖം പിന്നെ ബാക്കി രണ്ടെണ്ണം അടുത്തത് ആ രണ്ടും കുരുത്തം കെട്ടങ്ങളാണ് എന്റെ ചെറുപ്പ പ്രായം മാതിരി തന്നെ ഭയങ്കര കുരുത്തക്കേടാണ് രണ്ടും ഭയങ്കര കുരുത്തം എന്തൊക്കെ ഒപ്പിച്ചേക്കുന്നു പറയാന് പറ്റില്ല അതുതെ മാതിരിക്ക് എന്റെ അതേതന്നെ മുഖം തന്നെയാണ് എന്റെ അതേ സ്വഭാവം ചെറുപ്പത്തിലത്തെ ഭയങ്കര പോക്കിരികളാണ് ഭയങ്കര പോക്കിരികളാണ് പിന്നെ ഈ നാലെണ്ണം ഞാനാണല്ലോ നടു നടുത്തത് അപ്പോൾ ഈ നാലെണ്ണവും എന്റെ മെക്കിട്ടേക്ക് കയറണം എന്നായിട്ട് വരും ഞാന് ഒരു പാവം ആയതു കൊണ്ട് അങ്ങോട്ട് എത്തും പറയില്ല സമാധാന പ്രിയനാണ് ഞാൻ അതു കൊണ്ട് ഞാന് അങ്ങോട്ട് ഇതും പറയില്ല ഇതൊക്കെ കേട്ടു കൊണ്ട് ഞാൻ നിൽക്കും ഇതാണ് എന്റെ ഇതിൽ ഞാൻ പറയണത് പക്ഷേ ഏറ്റവും ഇളയതിന് അഞ്ചു വയസ്സായിട്ടുള്ളു അതിന് അതിന്റെ നല്ല ഹുങ്ക് ഓക്ക് ഉണ്ട് ഓൻ എന്തു കാട്ടിയാലും ഓനോട് ആരും ഒന്നും പറയില്ല അതുകൊണ്ട് കുറേ കുരുത്തക്കേട് കാട്ടും അങ്ങനത്തെ ഒരു സാധനമാണ് അത്